മതത്തെ കച്ചവടമായി കാണുന്ന പല നേതാക്കളും നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ ആ മതങ്ങള്ക്കൊന്നും പരസ്പരം സ്നേഹമോ ഐക്യമോ ഇല്ലാതെയാണ് മതങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് യഥാര്ത്ഥ മനുഷ്യരെ യേശുവിന്റെ സ്നേഹം അടിയുറച്ച് നില്ക്കുന്നതാണെങ്കിലും എല്ലാ മതങ്ങളേയും ഒരുമിച്ച് കൂട്ടുവാന് നമുക്ക് സാധിക്കുന്നു അതാണ് മതത്തേല് ഏറ്റോം വേണ്ടത് എല്ലാ മതങ്ങളും ഒന്നു തന്നെ എന്നുപറഞ്ഞ് പലരും വഴി തെറ്റിക്കുന്നു പക്ഷേ എല്ലാ മതങ്ങളും ഒന്നു തന്നെ അല്ല യേശു ക്രിസ്തുവാണ് ഈ ലോകം സൃഷ്ടിച്ചതെങ്കില് ഈ ഏറ്റവും വലിയ മത നേതാവ് യേശുവാണ് പക്ഷേ ആ യേശു എല്ലാവരെയും ഒരേ രീതിയിലാണ് കാണുന്നത് ഒരേ ഒരേ ഇതി ആളുകളുടെ കൂടെ ജീവിക്കുന്ന എപ്പോഴും സഹായിക്കുന്ന മനോഭാവത്തിലുള്ള യേശുവിന്റെ ആ മതമാണ് ഏറ്റവും വലിയ മതം ആ മതത്തെയാണ് മതം സ് മുതലെടുക്കുവാന് രാഷ്ട്രീയ സംഘര്ഷം മുതലെടുക്കാന് ചിലര് മതത്തെ ഒരു കച്ചവടമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ കരുതുന്നത്